മാർച്ച് നാലിന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേയാണ് അത് ഞാൻ റിമെംബർ ചെയ്യുന്ന ഒരു ഡേയാണ് പിന്നെ ജൂലൈ ഇരുപത്തി രണ്ടിന് എൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേയാണ് അത് ഞാൻ റിമെംബർ ചെയ്യുന്ന ഒരു ഡേയാണ് പിന്നെ മെയ് ഇരുപത് എൻ്റെ ബർത്ത്ഡേയാണ് അത് ഞാൻ റിമെംബർ ചെയ്യുന്ന ഒരു ഡേയാണ് പിന്നെ ഏപ്രിൽ ഇരുപത്തി ഏഴ് എൻ്റെ ഏട്ടൻ്റെ ബർത്ത്ഡേയാണ് അത് ഞാൻ റിമെംബർ ചെയ്യുന്ന ഒരു ഡേയാണ് ജൂലൈ പതിനൊന്ന് എൻ്റെ അമ്മയുടേയും അച്ഛന്റേയും വെഡിങ് ആനിവേഴ്സറിയാണ് അതും ഞാൻ റിമെംബർ ചെയ്യുന്ന ഒരു ഡേ തന്നെയാണ്